മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് ബഹുമാനം എന്നാണ് കാരണം നമ്മൾ ഇപ്പം ഒരാൾക്കു ബഹുമാനം തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കും നമ്മളേം ബഹുമാനിക്കും അവർ പ്രത്യേകിച്ച് മുതിർന്നവരെ നമ്മളെ ടീച്ചേഴ്സ് ഉസ്താദ്മാർ നമ്മളുടെ മാതാപിതാക്കൾ ഇവർക്കുള്ള ബഹുമാനം പ്രത്യേകം മുതിർന്നവർക്കുള്ള പ്രത്യേക ബഹുമാനം കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളവരെ ബഹുമാനിച്ചാണ് നമ്മൾ വേറൊരു വിധത്തിൽ നമ്മളേ ആരെങ്കിലും ബഹുമാനിക്കും പിന്നെ മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാൾ ആയതിനാൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഞാൻ ഒരു മലയാളി ആണ് നമ്മളുടെ മാതൃ ഭാഷ മലയാളമാണ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ ചതിക്കാത്ത ഒരു ഭാഷ മലയാളമാണ് നമുക്ക് എവിടെയും പോയാൽ നല്ല ക്ലിയർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മലയാളം സംസാരിക്കാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷയാണ് മലയാളം മലയാളം എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പം ഏത് രാജ്യത്തു പോയി കഴിഞ്ഞാലും മലയാളം അറിയുന്ന ആൾക്കാർ കൂടുതലായിരിക്കും എല്ലാ ഭാഷേനെക്കാളും കൂടുതലായിട്ട് അറിയുന്നത് മലയാളം അറിയുന്ന ആൾക്കാർ ആയിരിക്കും